ആ ഇത് സൗഭാഗ്യ ചിറ്റ്സ് ആൻഡ് ഗോൾഡല്ലേ ആ എനിക്ക് മാനേജറെ ഒന്ന് കിട്ടുമോ ആ ഞാനേ ഞാനവിടൊരു ഗോൾഡ് ലോണിൻ്റെ ആവശ്യത്തിനുവേണ്ടി വിളിച്ചതായിരുന്നേ

ആ കൈയിലൊരു പത്തിൻ്റെ അടുത്തുണ്ട് പത്തുപവൻ്റെ അടുത്തുണ്ട് ആ അതെ നമുക്കെത്ര കിട്ടും ഗ്രാമിനൊക്കെ അതേല്ലേ ആ അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ പ്രൊസീജർസൊക്കെ ഞാനെന്തൊക്കെ കൊണ്ടുവരേണ്ടത് ഒരു അക്കൗണ്ടുണ്ട് പക്ഷെ അതുപയോഗിച്ചിട്ടൊക്കെ കുറേയായി ആ ആ ആ ആ

എനിക്ക് കുറച്ചത്ത്യാവശ്യമുണ്ടായിരുന്നു രണ്ടുദിസത്തിനുള്ളിൽ കിട്ടുമോ ഞാൻ നാളെ വന്നാൽ നാളെത്തന്നെ എല്ലാം തീരുമോ

അത് ഇന്നിപ്പോൾ ഞാൻ നാട്ടിലില്ല ഞാൻ നാളെ എത്തൂള്ളൂ നാട്ടിൽ ആ ആ ഇല്ല അത് ഞാൻ ഒന്ന് ഇപ്പോൾ ചോദിക്കാനിരിക്കായിരുന്നു അത് എങ്ങനെയായിരിക്കും അതിൻ്റെ തിരിച്ച്

അതേല്ലേ

ആ ആ കുറച്ചു വലിയ എമൗണ്ടാണത് അതെത്ര

ഇല്ല ഇന്ന് ഞാനേ നാട്ടിലില്ല ഞാനത് അങ്ങനെ വിചാരിച്ചില്ല നാളെ മറ്റന്നാളിനാണ് മറ്റന്നാളേക്കാണ് ക്യാഷിൻ്റെ ആവശ്യം പെട്ടെന്ന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽപ്പിന്നെ നാളെ മതീല്ലോ അല്ലെങ്കിൽപ്പിന്നെ ഞാൻ റിസ്ക് എടുത്ത് വരണം നാളെ കുഴപ്പമില്ലല്ലോ നാളെത്തന്നെ കഴിയില്ലേ പ്രൊസീജർസൊ ഒറിജിനലാണ് ആ ശരി ഇതിപ്പോൾ എത്ര കൊല്ലത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു അടവുതീരണം അങ്ങനെയൊക്കെയുണ്ടോ ഏതാ പലിശ ആ പലിശ കുറവുള്ളതിനു വെച്ചാൽ മതി വ്യത്യാസമൊന്നും ഇല്ലല്ലോ

ആ ശരിയെന്നാൽ ആയിക്കോട്ടെ ശരി ഉം ശരി